ഹലോ ഹലോ അന്ന കേക്ക് വേൾഡ്സ് ആരായിരുന്നു അതെ അതെ അതെ അന്ന കേക്ക് വേൾഡ്സ് പറഞ്ഞോളൂ

ആ ബർത്ത് ഡേ പാർട്ടിക്കല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈറ്റ് ഫോറസ്റ്റോ ബ്ലാക്ക് ഫോറസ്റ്റോ എല്ലാം ഇപ്പം സ്റ്റോക്കിരിപ്പുണ്ട് നിങ്ങൾക്ക് പറയുകയാണെങ്കിലെന്ന എന്നത്തേക്ക് വേണ്ടിയായിരുന്നത് ആ രണ്ട് രണ്ട് ദിവസത്തിനുള്ളിലാണെ നമ്മൾ അതിനുള്ളത് ഉണ്ടാക്കി സെറ്റ് ചെയ്തു തരാം ഈ പിന്നിങ്ങനെ വൈറ്റ് എപ്പോഴത്തേക്കാണ് പാർട്ടി എപ്പോഴത്തേക്കാണെന്നു പറയാമോ ഒൻപതു മണി അല്ലേ ആ അന്നേരത്തേക്ക് തരാം അന്ന് നമ്മളൊരു എട്ടു മണിയാകുമ്പോഴത്തേനും തരാം ബ്ലാക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് നമുക്ക് വൺ കെ ജി വരുമ്പം എഴുന്നൂറ് രൂപ എഴുന്നൂറ് തൊട്ട് എഴുന്നൂറ്റൻപത് രൂപ വരും പിന്നെ ഹാഫ് കെ ജി ആകുമ്പോൾ നാന്നൂറ് രൂപ നാന്നൂറ്റി ഇരുപത് രൂപ ആകും റെഡ് ആകുമ്പം നാന്നൂറ്റി എൺപത് രൂപ ഹാഫ് കെ ജി ഫുള്ളാകുമ്പം മാറ്റി വൺ കെ ജി ആകുമ്പം എണ്ണൂറ് രൂപ എണ്ണൂറ്റി നാൽപ്പത് രൂപ വരും രണ്ടര കിലോ അത്രയും അത്രയും വലുത് വേണമല്ലേ ആ രണ്ടര കിലോ ആകുമ്പം ഞാൻ ഫോട്ടോസ് എങ്ങനത്തെ മോഡൽ എങ്ങനത്തെ പേരെന്താണ് എഴുതേണ്ടത്

പേര് ഡീറ്റെയിൽസൊന്ന് വാട്സപ്പ് ചെയ്തേക്കാമോ കൊച്ചിൻ്റെ പേരും

ആ നമ്മൾ നമ്മൾ ഡെലിവർ ചെയ്യും നമ്മൾ ഡെലിവർ ചെയ്യും നമ്മൾ ബാക്കി അവിടം വരെ എത്തിക്കുന്നതു വരെ നമ്മൾ നോക്കിക്കോളാം

നമുക്ക് നിങ്ങൾ ഓഡർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെല്ലാം സെറ്റ് ചെയ്തു തരും അങ്ങനത്തെയാണ് നമ്മൾ നമ്മളിപ്പം ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത്രയും കേക്കുകളാണുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് റെഡ് വെൽവെറ്റ് പിന്നെ പ്ലം മാർബിൾ അങ്ങനത്തെ ഐറ്റംസാണ് ഷോപ്പിലുള്ളത് നിങ്ങൾ പറയുന്ന ഓർഡറിനനുസരിച്ച് നമ്മൾ സാധനം ഉണ്ടാക്കി തരും നമുക്ക് ഓഡർ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് കാരണം എന്താണെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും സാധനങ്ങളായിരിക്കും ഉണ്ടാകുക അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മെയ്ക്ക് ചെയ്തു തരും കേക്ക് മെയ്ക്ക് ചെയ്തു തരും നിങ്ങൾക്ക് സന്തോഷത്തിനു വേണ്ടി നമ്മളെന്തും ചെയ്യും നിങ്ങൾക്ക് വേണ്ടതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു തരും അതാണ് എന്തോ ആ ഞാൻ ഫോട്ടോസ് ഞാൻ ഫോട്ടോസ് വാട്സപ്പ് ചെയ്യാം മോഡൽ ഞാൻ വാട്സപ്പ് ചെയ്യാമേ ഓക്കെ താങ്ക് യൂ ഫോർ കോണ്ടാക്ടിങ്